എനിക്ക് സഹോദരങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് സിസ്റ്ററുണ്ട് ഞങ്ങൾ ട്വിൻസാണ് അപ്പോൾ സിസ്റ്ററെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുകയാണെങ്കിൽ തന്നെ എന്താ പറയുക ഞങ്ങളുടെ ഫേസ് അത്യാവശ്യം ഡിഫറെൻസാണ് പിന്നെ ഫുഡിന്റെ കാര്യത്തിലൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിന്റെ അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഒരേപോലെ തന്നെയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവൾക്ക് അവൾക്ക് കഴിക്കുന്ന ഫുഡും ഞാൻ കഴിക്കുന്ന ഫുഡും ഞങ്ങൾ തമ്മിലുള്ള ഞങ്ങളുടെ ആ ടേസ്റ്റ് ഒരേപോലെയാണ് പിന്നെയുള്ള വെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക സ്വഭാവത്തിന് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്വഭാവം ചെറിയ ചെറിയ വ്യത്യാസം അവിടുന്നിവിടുന്നൊക്കെ ഉണ്ട് എന്നാലും ഏറെക്കുറെയൊക്കെ ഒരേ പോലെ തന്നെയാണ് ഉള്ളത് പിന്നെയെന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക പിന്നെ എന്താ പറയുക സംസാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഫേസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ തമ്മിൽ അതാണിപ്പോൾ എന്റെ സഹോദരങ്ങളെ കുറിച്ച് പറയാനുള്ളത് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല